ബാങ്കുകളിൽ നിന്നല്ലാതെ നമുക്ക് വേറെ പല സ്ഥലങ്ങളിൽ നിന്നും വായ്പ്പകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ അത് ആ ഒരു കുറഞ്ഞ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഒരുപാട് ഏജൻസിയും സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ അങ്ങനെ ഒക്കെ ഒരുപാട് കൊള്ള പലിശ ഈടാക്കിക്കൊണ്ട് അവർ വായ്പ്പകൾ നൽകി വരുന്നുണ്ട് അതിൽ വീണ് പോവുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുമുണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പരിചിതരാണ് നമുക്ക് അത് അതുപോലെ അത് ഒരുവിധം അറിവില്ലായ്മയായിരിക്കാം അങ്ങനെ എടുക്കുന്നത് പിന്നെ അത് തന്നെ അല്ല കുറേ അത്യാവശ്യ കാര്യങ്ങൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം പിന്നെ ഒരു ഒരു പ്രാവശ്യം ഒരു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എടുത്തു അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചു വീണ്ടും അവർ കടക്കെണിയിലേക്കാണ് പോവുന്നത് കൊള്ള പലിശ ഈടാക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഇപ്പം നമ്മൾ ഒന്നെടുത്തു തിരിച്ചടയ്ക്കാനാവാതെ അവർ വീണ്ടും പൈസ എടുക്കുന്നു വീണ്ടും അതിൻ്റെ ഇരട്ടി പലിശയാവുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് വെട്ടിൽ വീഴുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് ശരിക്കും പിന്നെ ബാങ്കുകളിൽ പോയി പണം എടുക്കാനുള്ള ആ സൗകര്യ കുറവ് അതൊക്കെ കൊണ്ടാവാം ബാങ്കിൽ ചെന്ന് കഴിഞ്ഞെന്നാലോ കുറേ ഇടപാടുകളൊക്കെ ഉണ്ട് അതെല്ലാം നടത്തി വായ്പ്പകൾ കിട്ടൂ എന്നൊക്കെ ഉള്ള രീതി പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ കുറേ സംഘടനകളൊക്കെ വന്നും കുറേ കുറേ സംഘടനകളിലൂടെ തന്നെ ബാങ്കിൽനിന്ന് പണം ഒരു പത്ത് പേർ കൂടി അല്ലെങ്കിൽ ഇരുപത് പേർ കൂടിയൊക്കെ കുറേ ഗ്രൂപ്പുകളൊക്കെ രൂപീകരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വായ്പ്പകൾ ഇപ്പം ബാങ്കിൽനിന്ന് പെട്ടെന്ന് കിട്ടുന്നതൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോവുന്നത് അപ്പോൾ ഒരു നമ്മൾ വ്യക്തിപരമായിട്ട് ലോണ് എടുക്കാനായിട്ട് ബാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞെന്നാൽ ഒരുപാട് രേഖകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വെക്കേണ്ടതായിട്ട് വരുന്നു പക്ഷെ നമ്മൾ ഒരു സംഘമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു ഗ്രൂപ്പ് ബേസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ വേണമെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പരിധി വരെ ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്തതോടുകൂടി ആ ഒരു കൊള്ള പലിശക്കാരിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്വകാര്യ വ്യക്തികളിൽ നിന്നൊക്കെ ഇതുപോലെ പലിശ കൂട്ടി ഈടാക്കുന്ന വളരെ ഇപ്പോൾ കുറഞ്ഞ് വരുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് അതൊക്കെ അങ്ങ് ശരിക്കും പറഞ്ഞെന്നാല് ആ ഗ്രൂപ്പിൻ്റെ ആ ഒരു എന്തോ വളർച്ച അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്